ഹലോ ആരാ വിളിക്കുന്നത് അതേല്ലോ ഇതെവിടുന്നാ ആരാ വിളിക്കുന്നത്

ആ ഉണ്ടായിരുന്നു ആ അത് നമ്മുടെ തോപ്രാംകുടി പള്ളിയുടെ അവിടെ ഒരു വലിയ വളവുണ്ടെ ആ വളവിന്റെ അവിടെ ഒരു വലിയ പാണ്ടിലോറിയും കാറുംകൂടെ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് രണ്ടു ചെറുപ്പക്കാരങ്ങണ്ടായിരുന്നു കാറിന്റെ അകത്ത് എന്നാണു പറയുന്നതുകേട്ടത് ഒരാളുടെ കാലൊടിഞ്ഞു ഒരാളുടെ കൈക്കും ഒക്കെ എന്തോ പറ്റിയെന്നാണു പറഞ്ഞത് ആ ലോറിക്കാരനും ഉറക്കത്തിലായിരുന്നെന്നാണു പറയുന്നതുകേട്ടത് തമിഴ്നാട്ടില്നിന്നങ്ങാണ്ടു വന്നതാണേ ചരക്കൊക്കെ ആയിട്ടേ ആ നമ്മുടെ പള്ളിയിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു അപ്പോള് അച്ചൻ അറേഞ്ച് ചെയ്ത് അവരെ വേഗം നമ്മുടെ മുരിക്കാശ്ശേരി അത് അടുത്തുള്ള സ്ഥലമാണേ മുരിക്കാശ്ശേരി അവിടെ ഇച്ചിരി വലിയ ഹോസ്പിറ്റലാണ് സിസ്റ്റേഴ്സ് നടത്തുന്നതാണേ അപ്പോള് അവരെ അങ്ങോട്ടു കൊണ്ടുപോയി മരിക്കുകയൊന്നും ചെയ്തില്ല കോളേജ് പിള്ളാരാണെ അവര് മൂന്നാർ കാണാനൊക്കെയായിട്ട് ലൈസൻസ് ഉണ്ടായിരുന്നു മൂന്നാർ കാണാൻ വേണ്ടി വന്നതെങ്ങാണ്ടായിരുന്നു കോട്ടയം ആ ഭാഗത്താണെന്നാണു പറയുന്നതു കേട്ടത് ഓഹ് ആ പൊലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേസ് എടുത്തിട്ടുണ്ട് ആ അതെങ്ങനെ പക്ഷെ അപകടം നടന്ന് അപകടം നടക്കുമ്പോള് ഓൾറെഡി ലോറിക്കാരൻ്റെ പേരിലാണു കേസെടുത്തിട്ടുള്ളത് പിന്നെ എങ്ങനെയായാലും എന്നതാ പോലീസൊക്കെ വന്നാരുന്നു ഏഷ്യാനെറ്റുകാര് വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടറും വന്നിട്ടുണ്ടായിരുന്നു എന്നാ തോന്നുന്നത് രാവിലെ സമയത്തായിരുന്നേ അപകടമേ അതുകാരണം എല്ലാവരും ആ നമ്മുടെ റോഡിനെ റോഡൊക്കെ അത്ര മെച്ചമായിട്ടുള്ള റോഡല്ല മൊത്തം കുണ്ടും കുഴികളൊക്കെ ആയിട്ട് കിടക്കുകയാണെ അപ്പോള് അതിൻ്റെയും കാണും സാർ ഈ വര്ഷം മൊത്തം നമ്മുടെ ഇവിടുത്തെ ഇടുക്കിയിലെ മഴയെ കുറിച്ചൊക്കെ അറിയാമല്ലോ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള വെള്ളം മൊത്തം ഒഴുകിവന്ന് ഭയങ്കരമായി റോഡൊക്കെ മൊത്തം പോയി കിടക്കുകയാണ് ആ അതെ ആ വെട്ടിച്ചതാവാനായിരിക്കും സർ ചാൻസ് പെട്ടെന്ന് ഒരു കുഴിയിൽ ചാടിയപ്പഴുത്തേക്കുവേ എങ്ങനെയിതു ആ ചെറുപ്പക്കാരു പിള്ളേരല്ലേന്നെ ആ രാവിലെ കട തുറന്ന് ആൾക്കാരൊക്കെ വരുന്നത് ഉണ്ടായിരുന്നു പിന്നെ പാലു കൊണ്ടു പാലു കൊണ്ടുകൊടുക്കാനൊക്കെ ചേട്ടന്മാരൊക്കെ വരുന്ന അവരൊക്കെ എല്ലാവരും കൂടി ഓടിക്കൂടി എങ്ങനെയാണേലും ആശുപത്രിയിൽ എത്തിച്ചു പിന്നെ പിള്ളേരല്ലേ പിള്ളേരുടെ സ്ഥിതി ഓർക്കുമ്പോള് ആ അ ഓക്കേ ഓക്കേ അ ഓക്കേ ബൈ താങ്ക്യൂ